ഓ വായന എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ പണ്ട് മുതലേ ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു വായനയെന്ന് പറഞ്ഞാല് എല്ലാം വായിക്കും കവിതകൾ വായിക്കും നോവലുകൾ വായിക്കും ചെറുകഥകള് അപ്പോള് അങ്ങനെ എനിക്ക് വായനയോട് ഭയങ്കര താൽപ്പര്യമാണ് ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഞാന് തകഴിയുടെ കയര് ചെമ്മീന് അങ്ങനെ ഒത്തിരി കഥകൾ ഇപ്പോൾ ഞാന് ഇപ്പോൾ ഞാൻ വായിക്കുന്നെന്ന് പറഞ്ഞാല് സാധാരണ പത്ര കടലാസുകളൊക്കെ ആണ് വായിക്കുന്നത് അതുപോലെതന്നെ ചിലപ്പോള് ചില ഇപ്പോള് ഫോണിലും കാര്യങ്ങളിലും ഒക്കെവരുന്ന നോവലുകളൊക്കെ വായിക്കാറുണ്ട് വായനയെന്നു പറയുമ്പളേക്കി നമുക്ക് പലതരത്തിലുള്ള വായനാ ഇപ്പോള് എന്ത് പുസ്തകങ്ങള് കിട്ടിയാലും പ്രത്യേകിച്ച് ഇന്ന പുസ്തകമെന്നോ ഇന്ന നോവലുകളെന്നോ ഇല്ല പിന്നെ മുരുകൻ കാട്ടാക്കട കവിതകൾ വായിക്കാറുണ്ട് മിക്കപ്പോഴും പിന്നെ ഞാന് ഇപ്പോള് കൂടുതല് ഫോണിലൊക്കെ ഒത്തിരി റൊമാൻറ്റിക് നോവലുകളൊക്കെ വരാറുണ്ട് ചെറുകഥകളൊക്കെ വാരാ വരാറുണ്ട് അതേപ്പിന്നെ സിനിമയെക്കുറിച്ചുള്ള കഥകള് ഇതൊക്കെയാണ് ഞാന് കൂടുതലും ഇപ്പോള് വായിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സമയക്കുറവ് മൂലം ഞാന് വായനകളിപ്പോള് ചുരുക്കി വച്ചിരിക്കുകയാണ് എന്നൊക്കെ ആയാലും ഞാനിപ്പോള് ഒരെണ്ണം വായിച്ചിരിക്കുന്നെ പിന്നെ ബെന്യാമിൻ്റെ ആടുജീവിതം ഞാന് വായിച്ചോണ്ടിരിക്കുവാണ് അത് നല്ലൊരു കഥയാണ് നമ്മള്ക്ക് അറിയാകണക്ക് തന്നെ എൻ്റെ ഭർത്താവും ഗൾഫിലാണ് ആദ്യകാലത്ത് ഗൾഫിൽ പോകുന്നവർക്ക് ഗൾഫിൽ ഇപ്പോള് ഒത്തിരി പറ്റീരികളൊക്കെ പറ്റുമായിരുന്നു കാരണം ഇല്ലാത്ത കിടപ്പാടമൊക്കെ വിറ്റും പെറുക്കിയൊക്കെയാണ് അവര് ഗൾഫില് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോള് അങ്ങനെ ഒക്കെ ചെന്ന് പെട്ടവര് കഷ്ടപ്പെടുന്ന അവര് പെടുന്ന ആ ചെന്ന് ചതിക്കുഴികള് ആ ചതിക്കുഴികള് ഒക്കെ കുറിച്ചുള്ള ഒരു സിനിമ ഒരു പുസ്തകമാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്നത് അപ്പോള് അത് വായിച്ചപ്പോള് എനിക്ക് ശരിക്കും സങ്കട സങ്കടം തോന്നി അതിന് കാരണം ഒരു ഒരാളുടെ ജീവിതത്തിൽ എന്തുമാത്രം അനുഭവിക്കുകയാണ് അതിനെക്കുറിച്ചെല്ലാം കാരണം ഒന്നും പ്രതികരിക്കാന്പോലും ശക്തിയില്ല പറഞ്ഞാല് മനസ്സിലാകുന്ന ഭാഷയോ കാര്യങ്ങളോ ഒന്നും അല്ല ശരിക്കും അത് വായിക്കുമ്പോള് തന്നെ നമ്മള്ക്കറിയാം ആ ആളെന്തു മാത്രം അവടെ കിടന്ന് കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അതുപോലെതന്നെ പുള്ളി അതിനെയൊക്കെ അതിജീവിച്ച് ഒരു ഒരു സമയത്ത് പുള്ളി മരിക്കണമെന്നുവരെ തീരുമാനിച്ച് ഹല്ലാ ആ മണലില് കിടക്കുന്നതൊക്കെ ഓർക്കുമ്പോള് നമുക്കറിയാം അയ്യോ ഒരേ ഇങ്ങനെയും മനുഷ്യൻ പിന്നെ ഇങ്ങനെ ഇങ്ങനെയും ജീവിച്ചിരുന്നോന്നതുപോൽ നമ്മളതിശയിച്ചുപോകും കാരണം മരിക്കണമെന്നൊക്കെ വിചാരിച്ച് കിടക്കുമ്പോള് പാമ്പ് പോലും കൊത്താതെ പുള്ളി പോകുന്നതും അത് വെള്ളം കിട്ടാതെ കിടന്ന് അലയുന്നതും ലാസ്റ്റ് ഇങ്ങനെ ആ ആ ആടിൻ്റെ ആടിനു കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നതിൻ്റെയൊക്കെ കഥകളൊക്കെ വായിക്കുമ്പോള് ഒത്തിരി സങ്കടമാണ് ലാസ്റ്റ് പിന്നെ പുള്ളി അപ്പോള് വീട്ടുകാരെക്കുറിച്ചുപോലും ഒന്നും അറിയുന്നില്ല ഭാര്യ എന്തെടുക്കുന്ന് അറിയുന്നില്ല അങ്ങനെ ഒന്നും അറിയാത്തൊരു ജീവിതമാണ് അതൊക്കെ വായിക്കുമ്പോള് അപ്പോള് ആ ലാസ്റ്റ് ആ പുള്ളി നാട്ടില് വരുന്നതും പിന്നെ ഭാര്യയൊക്കെ ആയിട്ട് ജീവിക്കുന്നതും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോളൊക്കെ നമുക്കൊരു ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ് അതൊക്കെ കാണുമ്പോഴൊക്കൊക്കെ അങ്ങനെ എന്തെല്ലാം ഒത്തിരി പുസ്തകങ്ങള് ഞാന് വായിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു കുട്ടനാട്ടുകാരി ആയതുകൊണ്ട് എന്നെ കെ കല്യാണം കഴിച്ചിരിക്കുന്നത് കോട്ടയത്താണ് അങ്ങനെയൊരു കുട്ടനാട്ടുകാരിയാണ് അപ്പോള് തകഴിയുടെ കയര് വായിച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീന് ചെമ്മീന് ചെമ്മീനെന്നും പറഞ്ഞ കഥ വായിക്കുമ്പോള്ത്തന്നെ നമുക്ക് മനസ്സിലാകും അതിനകത്തെ കറുത്തമ്മ പരീക്കുട്ടി അങ്ങനെയുള്ള കഥാപാത്രങ്ങള് അപ്പോള് അത് ശരിക്കും പറഞ്ഞാല് അതൊരൂ ഒരു എന്നാ ഒരു റൊമാൻറ്റിക് നോവലാണ് ലാസ്റ്റ് അവര് ഒന്നാകണമെന്ന് വിചാരിച്ച് തന്നെയാണ് അവര് സ്നേഹിക്കാൻ ആഗ്രഹിച്ചത് പിന്നെ സാഹചര്യങ്ങള് മൂലം കറുത്തമ്മയെ വേറെ കല്യാണം കഴിച്ചുവിടുന്നതും പിന്നെ കൊച്ചുമുതലാളി ഇതിലേക്കൂടെയൊക്കെ നടക്കുന്നതും ഒക്കെ ഒരു ഒരു വല്ലാത്തൊരു കഥ തന്നെയാണ് അവസാനം അവരെ കറുത്തമ്മയെ വേറെ കല്യാണം കഴിച്ചുവിടുന്നു അപ്പോള് അതൊക്കെ അത് അതൊക്കെ നമ്മള് കല്യാണം കഴിച്ചു വിടുന്നു പിന്നേ അവര് ലാസ്റ്റ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതൊക്കെ അത് വായിക്കുമ്പോള് നമ്മള് അന്നത്തെ കാലത്തൊക്കെ വായിക്കുമ്പോള് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഇന്നിപ്പോള് കുട്ടികൾക്കൊന്നും നോവലോ പുസ്തകമോ ഒന്നും വായിക്കാൻ അവർക്കൊക്കെ ടി വിയും കാര്യങ്ങളൊക്കെ തന്നാണ് എപ്പോഴും വേണ്ടത് പിന്നെ നമ്മള് വായിക്കുന്നത് പിന്നെങ്ങനെ വായിക്കുന്നതെന്ന് വെച്ചാല് മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തപ്പോൾ എന്നുള്ള കഥ നോവല് വായിച്ചിട്ടുണ്ട് അപ്പോള് അങ്ങനെയുള്ള ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഞാന് വായിച്ച് നീർമാതളം പിന്നെ മാധവിക്കുട്ടി മാറി അവര് വേറെ പേരില് അറിയാന് അറിയപ്പെടാന് തുടങ്ങി പിന്നെ മുകുന്ദൻ്റെ മയ്യഴിപ്പുഴ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്